സാംസ്കാരിക പാരമ്പര്യങ്ങൾ ആഘോഷിക്കുന്നത് ശരിക്കും അവരുടെ ഭാഷകൾ തന്നെയാണ് മലയാളികൾ പലരും ഉപയോഗിക്കുന്നത് പല ഭാഷകളാണ് ഉപയോഗിക്കുന്നത് ഓരോരുത്തരും വലിച്ചു നീട്ടി സംസാരിക്കുന്നവരുണ്ട് കുറഞ്ഞ ചെറിയ രീതിയിൽ സംസാരിക്കും പിന്നെ ചില ഭാഷകൾ നമുക്കുപോലും മലയാളമാണെങ്കിലും മനസ്സിലാകാത്ത ഭാഷകളുണ്ട് നി ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആഘോഷിക്കുന്നത് പാരമ്പര്യം ആഘോഷിക്കുന്നതെന്നു പറഞ്ഞാൽ ഒരുപാട് നല്ല ഭാഷയിൽ സംസാരിക്കുന്നവരും പല സ്ലാങ്ങിൽ ഇപ്പോൾ സംസാരിക്കുന്നവരും ഉണ്ട് ഇതൊന്നും നമ്മുടെ രീതിയിൽ എനിക്കു മനസ്സിലായിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് കൂടുതൽ എനിക്ക് അറിയില്ല